എല്ലാ പ്രായത്തിലുള്ളവര്ക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് നടത്തം കൈ വീശിയുള്ള നടത്തം അത് സ്പീഡിൽ ഇത് ചെയ്യുമ്പം പ്രായം ഉള്ളവര്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവര് പെട്ടെന്ന് ക്ഷീണിക്കും ഒരു മണിക്കൂറില് കൂടുതലവരെക്കൊണ്ട് നടക്കുന്നതിന് സാധിക്കുകയില്ല എന്നാല് ചെറുപ്പക്കാരായിട്ടുള്ളവര് അവര് രണ്ടും മൂന്നും മണിക്കൂറ് ദൂരം ഡിസ്റ്റ്ന്സ് ഒരു കിലോമീറ്റർ അല്ല മൂന്നും നാലും കിലോമീറ്ററവര് പോയി നടക്കുകയും ഓടുകയും ഓടിയും നടന്നും അവര് വ്യായാമം ചെയ്യുന്നു അവര്ക്ക് അതുപോലെതന്നെ പുഷപ്പ് ലിഫ്റ്റിംഗ് എയര് ലിഫ്റ്റിംഗ് ഇതെക്കെ അവര്ക്ക് ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട് എന്നാല് പ്രായമുള്ളവര്ക്കത് സാധിക്കുകയില്ല അവര്ക്ക് നടത്തം മാത്രമെ പറ്റത്തുള്ളൂ ഒരു മണിക്കൂറില് കൂടുതല് അവരെക്കൊണ്ട് രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂറവര് നടക്കുന്നു അതേസമയം ചെറുപ്പക്കാര്ക്ക് പലവിധ ആക്റ്റിവിറ്റീസ് ഉള്ളവർക്ക് ഓട്ടവും ചാട്ടവും അതുപോലെതന്നെ ബോളിങ്ങും ബാറ്റിങ്ങും ഇതൊക്കെ അവര്ക്ക് നടക്കുന്നുണ്ട് അവരതെല്ലാം ചെയ്യും അവരുടെ ആരോഗ്യം അവര് സംരക്ഷിക്കുകയും ചെയ്യും നമുക്ക് മറ്റു പ്രായവുള്ളവര്ക്ക് അതിന് സാധിക്കുകയില്ല അവര് നടക്കുക എന്നുള്ള മാത്രമേ അവര് നടക്കുമ്പം തന്നെ അവര് കിതയ്ക്കുകയും അവര് ആകപ്പാടെ കാലിനും മുട്ടിന് വേദനയും കാലിന് വേദനയൊക്കെ ഉള്ളവര്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ചെറുപ്പക്കാര് വളരെ വേഗത്തിലോടുകയും നടക്കുകയും അതുപോലെതന്നെ മറ്റുള്ള ഓരോ വ്യായാമങ്ങളവര് ചെയ്യുക അതുപോലെതന്നെ ജിമ്മിൽ പോകുക ജിമ്മില്ലെ കാര്യങ്ങളവര് ചെയ്യുന്നു അതുപോലെതന്നെ കരാട്ടെയ്ക്ക് ചേരുന്നു കരാട്ടെ നടത്തുന്നു അങ്ങനെ പല പരിശീലനങ്ങളവര്ക്ക് നടക്കാന് സാധിക്കുന്നവർക്കാണ് അവര്ക്ക് ഇന്നാരോഗ്യപരമായിട്ട് അവരെ ഇപ്പഴേ അവര് നോക്കിയാല് മാത്രമേ അവര്ക്ക് പ്രായമാവുമ്പോള് അവര്ക്ക് എല്ലാ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ കണ്ട് ജീവിക്കുന്നതിന് സാധികത്തുള്ളു കുഞ്ഞുങ്ങള് നമ്മളെ പ്രായമായവര്ക്ക് അതിനുള്ള ഒരു യാത്ര ബുദ്ധിമുട്ടാണ് ഒരു തരത്തിലും പ്രായം ഉള്ളവർക്ക് കൂടുതൽ എക്സർസൈസ് ചെയ്യുന്നതിന് സാധിക്കുകയില്ല ചെറിയ ചെറിയ എക്സര്സൈസ്കള് ഓരോ ഓരോ കാര്യങ്ങളും പത്ത് മിനിറ്റ് ചെയ്യുക ശ്വാസം നെ വലിച്ച് വിടുക ഇനി ആ ശ്വാസം കുറച്ച് നേരം പിടിച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് പിടിച്ച് വെച്ചിട്ട് വിടാന് പറഞ്ഞാല് പ്രായമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് ചെറുപ്പക്കാരത് ചെയ്യും പ്രായമുള്ളവര് ഒരു മിനിറ്റ് കഷ്ടി ശ്വാസം വലിച്ച് പിടിച്ചേച്ച് അവര് പുറത്തേക്ക് വിടും പിന്നെ അവരെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലവര് എക്സര്സൈസ്കള് ചെയ്യുന്നു മറ്റ് കൊളസ്ട്രോളും ഒക്കെ ഉള്ളത് കൊണ്ട് രക്ത സമ്മര്ദ്ദം കൂടുന്നു അങ്ങനെ ഉള്ളപ്പം ഡോക്ടര്മാര് പറയുന്നു എക്സര്സൈസ് ചെയ്യണമെന്ന് പറയുന്നു അവര് പറയുന്ന എക്സര്സൈസിന്റെ ഒരു നാലിലൊരു ഭാഗം അവര്ക്ക് ചെയ്യാന് സാധിക്കും അതേസമയം മറ്റുള്ളവര്ക്കാണെങ്കില് കുഞ്ഞ് ചെറുപ്പക്കാര്ക്കാണെങ്കില് അവരത് എക്സര്സൈസ് പൂര്ണ്ണമായിട്ട് ചെയ്യും അവര്ക്ക് അവരുടെ കൊളസ്ട്രോള് പിന്നെ ഹൃദയാരോഗ്യം ഒക്കെ അവര്ക്ക് നിലനിര്ത്തുന്നതിന് സാധിക്കും വലിയവർക്ക് അത് ബുദ്ധിമുട്ടാണ് അവര് വന്നൊ ഒരു പ്രാവശ്യം ചെയ്യണ്ടത് നാല് പ്രാവശ്യം കൊണ്ടവര് ചെയ്യുന്നു ചെറുപ്പക്കാരാണെങ്കില് നാല് പ്രാവശ്യം കൊണ്ട് ചെറുപ്പ് ചെറുപ്പക്കാര് വലിയവർ പ്രായമുള്ളവര് ചെയ്യുന്നത് ചെറുപ്പക്കാരൊരു പ്രാവശ്യം കൊണ്ട് ചെയ്യുന്നു അങ്ങനെ അത് വ്യത്യാസമുണ്ട് ചെറുപ്പക്കാര്ക്കും വലിയ എന്നാൽ വലിയവർക്കുമായിട്ട് ആ അങ്ങനെ ഉള്ള വ്യത്യാസമാണുള്ളത്